ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും വിവിധ തരത്തിലുള്ള കളികളാണ് കുട്ടികൾ കളിക്കാറ് പ്രധാനമായിട്ടും ഗ്രാമപ്രദേശങ്ങളിൽ കളിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥലം ഉണ്ടായിരിക്കും പട്ടണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ പരസ്പരം കൂടി നിന്ന് കളിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ പട്ടണപ്രദേശങ്ങളിൽ അങ്ങനെയല്ല പട്ടണങ്ങളിൽ ബിൽഡിങ്ങുകളൊക്കെ വളരെ വലുതായതുകൊണ്ട് പര കുട്ടികൾക്ക് പരസ്പരം തന്നെ ഒരു ബന്ധം ഉണ്ടാകാറില്ല പ്രധാനമായിട്ടും പട്ടണപ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലൊക്കെ ഒക്കെ ഗെയിം കളിക്കാറാണ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ പരസ്പരം കുട്ടികളെല്ലാം കൂടെ കൂടി ചേർന്ന് വിവിധ തരത്തിലുള്ള പന്ത് കളിക്കുകയോ ഫുട് ബോൾ കളിക്കുകയോ ക്രിക്കറ്റ് കളിക്കുകയോ അങ്ങനൊക്കെയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് പട്ടണങ്ങളിൽ എല്ലാവരും അവരവരുടേതായ രീതിയിൽ കുടുംബങ്ങളിലേക്ക് ഒതുങ്ങുകയും കുട്ടികൾക്ക് അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ പോലും അറിയില്ലായിരിക്കും അവർ സ്വന്തമായിട്ടുള്ള രീതിയിൽ മൊബൈൽ ഫോണുകളിൽ കളിക്കും മൊബൈൽ ഗെയിമുകളായിരിക്കും കളിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ ഗ്രാമപ്രദേശങ്ങളിലെ ഗ്രാമ പ്രദേശങ്ങളിലെ കുട്ടികൾ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ക്രിക്കറ്റ് കളിക്കുകയും പട്ടണത്തിലുള്ള കുട്ടികൾ അതെ ഗെയിം കളി തന്നെ മൊബൈലിലായിരിക്കും കളിക്കുക അവർ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറുമായിട്ടായിരിക്കും കളിക്കുക ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ചെസ്സ് പോലുള്ള ഗെയിമുകളെടുക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് രണ്ട് പേര് ഇരുന്ന് കളിക്കുകയാണെങ്കിൽ പട്ടണ പ്രദേശത്തിലുള്ളതിന് വിപരീതമായിട്ട് കമ്പ്യൂട്ടറും കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടായിരിക്കും കളിക്കുന്നത് അതുകൊണ്ടുതന്നെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളും പട്ടണപ്രദേശങ്ങളും വളരെ അധികം വിഭിന്നമായിട്ടാണ് ഗെയിമുകൾ കളിക്കുന്നത് അതുപോലെത്തന്നെ ഫുട് ബോളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഗ്രാമ പ്രദേശത്ത് കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് കളിക്കുകയാണെങ്കിൽ വിപരീതമായിട്ട് പട്ടണപ്രദേശത്തിലുള്ളവർ മൊബൈലിലായിരിക്കും ഗെയിം കളിക്കുന്നത് പട്ടണ ഗ്രാമത്തിലുള്ളവർ മൊബൈലിൽ കളിക്കുന്നില്ലായെന്ന് പൂർണ്ണമായിട്ടും പറയുന്നില്ല എങ്കിലും അവർ കളിക്കുന്നുണ്ട് എങ്കിലും പട്ടണത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാമപ്രദേശത്തിലുള്ള കുട്ടികൾക്ക് വളരെ കുറച്ചാണ് മൊബൈൽ ഉപയോഗിച്ച് കളിക്കുന്നതെന്നു നമുക്ക് പറയാവുന്നതാണ്